എനിക്ക് ഞാൻ വായിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരാണ് റോബെട്ട് കിയോസാക്കി ഒരു അമേരിക്കൻ എഴുതുകരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ബുക്കുകളൊക്കെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടൂണ്ട് അതിൽ വൈ വീ വാണ്ട് യൂ റ്റു ബീ റിച്ച് അത് പിന്നെ അതുപോലെ തന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ദി ബിസിനെസ്സ് സ്കൂൾ ഫോർ പീപ്പിൾ ഹൂ ലൈക് ഹെൽപ്പിങ്ങ് പീപ്പിൾ ക്യാഷ് ഫ്ലോ കോഡ്രൻട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ബുക്കുകളിൽ ബുക്കുകളിൽ ചിലതാണ് അദ്ദേഹം എഴുതിയ ബുക്കുകളിൽ അതിൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് അത് തന്നെയാണ് അത് അത് ലോക പ്രശസ്തമായൊരു ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹം കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു സാമ്പത്തിക സാമ്പത്തിക ദിവസം നല്ല രീതിയിൽ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ആസ്തികളിൽ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം സ്വന്തമായി ബിസിനസ്സ് ആരംഭിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതിൽ സാമ്പത്തിക ബുദ്ധി അത് അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെയും സമ്പത്ത് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലും പ്രധാനത്തെ ഈ ബുക്കിലെല്ലാം പറയുന്നത് അത് ഒരു ബിസിനെസ്സ് ഒരാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കൽ നിർബന്ധമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്ക് പല ഭാഷകളിലും അത് ലഭ്യമാണ് അത് വായിക്കുന്നത് നല്ല ഒരു നമ്മൾ എന്ത് ബിസ്നസ്സ് ചെയ്യുക ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊരു ഉണർവ് കിട്ടും അദ്ദേഹം രണ്ടായിരം രണ്ടായിരം ഏപ്രില് മാസം രണ്ടായിരം രണ്ടായിരം വർഷം അന്ന് പ്രസിദ്ധീകരിച്ച ബുക്കാണ് പക്ഷേ ഇപ്പോഴും അതൊരു എന്താണ് പറയുക ഇപ്പോഴും ആളുകൾ അത് വാങ്ങി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ പഠന രീതികളൊക്കെ അന്വേഷിച്ച് പഠിച്ച് കൊണ്ടിരിക്കുന്നു ബുക്കിനെ കുറിച്ച് സ്വന്തമായി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പല ആളുകളും അത് നോക്കുന്നുണ്ട് സമ്പന്നനാ യ ഒരു അച്ഛന് അതിങ്ങനെയാണ് റിച്ച് ഡാഡിന് റോബർട്ട് കിയോസാക്കി എന്ന ഒരു സമ്പന്നനായ അച്ഛൻ തൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് അദ്ദേഹം സമ്പത്തും വിധക്തം നിക്ഷേപവും കാരണം ആ സമ്പത്ത് സമ്പാദിച്ചു അദ്ദേഹം അതേസമയം പാവപ്പെട്ട അച്ഛൻ ഈ റോബട്ട് കിയോസാക്കിയുടെ അച്ഛൻ സ്വന്തം പിതാവിനായി അയാൾ അവകാശപ്പെടുകയാണ് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക ഭദ്രത നേടിയില്ല അതാണ് കാര്യമായിട്ട് ആ ബുക്കിൽ പറയുന്നത് രണ്ടും രണ്ടായിത്തന്നെ മുഴുവൻ വായിക്കുമ്പോഴെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളു